അഞ്ഞൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുനൂറ്റി ഒൻപത് അഞ്ച് ലക്ഷത്തി പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച്